ഹലോ ഇത് മെൽവിസ് മൊബൈൽ ഷോപ്പല്ലേ ആ അതെ അപ്പം ഞാനിപ്പം വിളിച്ചത് ഞാനൊരു മൊബൈൽ ഫോണെടുക്കാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്

ആ ആ ആ അപ്പം ഞാൻ ഈ നോക്കുന്ന പോക്കോ എക്സ് ഫൈവ് പ്രോ ഫൈ ജി അങ്ങനെയൊരു ഫോണുണ്ടോ ആ പോക്കോ ആ എക്സ് ഫൈവുണ്ടല്ലേ അപ്പോൾ അതിൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ സെയിം ഫോണുണ്ട് അപ്പോൾ അവനാണെന്നോട് പറഞ്ഞു ഇത് കിടിലം ഫോണാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഈ സാവിയോ ഒരു സാവിയോയെന്നു പറഞ്ഞ ഒരുത്തനെ അറിയാമോ ഒരു മരിയൻ കോളേജിൽ പഠിക്കുന്നൊരുത്തൻ ആ ആ ആ അവനാണ് പറഞ്ഞത് ഈ ഫോണെന്തോ കിടിലൻ സാധനമാണ് മറ്റേതാണ് മറിച്ചിട്ടതാണ് അപ്പോൾ

ഞാനൊരു മുപ്പതിനായിരം വരെ പോകുന്നതുകൊണ്ട് കുഴപ്പം ഇല്ല

ഉള്ളു അല്ലേ ഓ ആഹാ ആഹാ അത്രയും നല്ല ഓഫ് വിലക്കുറവൊക്കെ ഉണ്ടല്ലേ

ആ എനിക്കിത് മതി സാവിയോ എന്നു പറഞ്ഞ ചെറുക്കൻ പറഞ്ഞത് ആ ഇത് നല്ല ഫോണാണെന്നൊക്കെ നല്ല പരിപാടിയൊക്കെ ഇതിൻ്റെ സ്പെക്സൊക്കെന്തുവാ ഇതിൻ്റെ സ്പെക്കൊക്കെ ഒന്നു പറയുമോ സ്പെക്സൊക്കെ ഒന്ന് പറയാമോ

ആഹാ ആഹാ

അത്ര പെട്ടെന്ന് ഫുൾ ചാർജ്ജ് ആവും ഫാസ്റ്റ് ചാർജിംഗാണല്ലേ

ആഹാ ആ അപ്പോൾ ഇതിൻ്റെ ഗെയിമിംഗൊക്കെ എക്സ്പീരിയൻസൊക്കെ എങ്ങനെയാണ് ആഹാ ആഹാ ആഹാ അപ്പോൾ ഈ ഇത് ഇതിൻ്റെ ഓ അതുശരി ആ എന്തോ ആഹാ ആ അപ്പോൾ ഇതിൻ്റ ഗെയിമിംഗ് എക്സ്പീരിയൻസൊക്ക എങ്ങനെയായിരിക്കും

ആ പിന്നെ ഞാൻ ആഹാ പിന്നെ ഞാൻ ഈ പോക്കോയുടെ ഈ ചില ഫോണുകൾക്കൊക്കെ ഈ തീപിടിച്ചങ്ങനെ പോകുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ആഹാ ഞാൻ ഞാനത്യാവശ്യം ഗെയ്മൊക്കെ ഓ ഓ ഓ ഓ അങ്ങനെ കുഴപ്പമുള്ളു അല്ലേ ആഹാ ആ അല്ലാതെ വേറെ അങ്ങനെ വലിയ സീനൊന്നും ഇല്ല

ആഹാ ഹാ ഹാ ഓക്കെ ഓക്കെ ഓക്കെ

ആ ആ ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ റേറ്റെങ്ങനെയാണെന്നാണ് പറഞ്ഞത് ആഹാ ആ അപ്പോൾ ഇത് ഓഫാക്ക് കാണുമോ അപ്പോൾ ഇത് കുറഞ്ഞ് കിട്ടാൻ വഴിയുണ്ടോ എൻ്റെ ആ എൻ്റെ വീടിവിടെ കാഞ്ഞിരപ്പള്ളിയാണ്

ആ അല്ല ഞാൻ കുട്ടിക്കാനത്ത് ആ ഞാൻ കുട്ടിക്കാനത്തിടയ്ക്ക് വരുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ വിളിച്ചത്

ആ കോസ്റ്റ് റേറ്റെന്തെങ്കിലും ഓഫറ് പറ്റുമോ

ആ പക്ഷേ ആ അത് ആ സാവിയോ ആ മണ്ടൻ പറഞ്ഞത് മുപ്പതൊക്കെ ആവുമെന്നാണ് പറഞ്ഞത് അവനെടുത്തത് മുപ്പതായി അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മുപ്പത് പ്രതീക്ഷിച്ചു അപ്പം

ഓ ഹാ അതുശരി ആഹാ ആ അപ്പോൾ അത് കുഴപ്പം ഇല്ല ഞാനെന്നാൽ ഒരു ദിവസം അങ്ങോട്ടിറങ്ങാം ആ എന്നാൽ ശരി ഞാൻ ആ ഞാൻ വരുമ്പം ഞാൻ അങ്ങോട്ട് വരുമ്പം ഞാൻ വിളിക്കാം ആ ഓക്കെ എടാ ഓക്കെ ഓക്കെ